ജൈവ കൃഷി വിജയകരമാക്കുന്നതിന് ഏറ്റവും വലിയ പോം വഴി എന്നു പറയുന്നത് കർഷകർക്ക് അതിനുള്ള അവേർനസ്സ് കൊടുക്കുക എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതികളാണ് അവലംഭിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ച് ആ പരമ്പരാത പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതികളെക്കുറിച്ച് മാത്രമേ അവർക്ക് അറിവുള്ളു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൊണ്ടുള്ള ജൈവ കൃഷി രീതികൾ പ്രത്യേകിച്ച് നാനോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ജൈവ കൃഷി രീതികൾ ഇന്ന് കർഷകർക്ക് അന്യമാണ് അപ്പം അതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് നൽകണം അതോടൊപ്പം തന്നെ അതിനുള്ള സഹായങ്ങൾ മറ്റൊക്കെ ഇപ്പം കൃഷി ഭവനുകളിലോടു കൂടി മറ്റുമൊക്കെ അതിനുള്ള സഹായങ്ങളൊക്കെ ഒരു പരിധി വരെ എത്തുന്നുള്ളൂ കർഷകർക്ക് ആവശ്യമായ രീതിയിൽ എല്ലാ കർഷകരിലേക്കും എത്തുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും മാറി ആയിട്ടില്ല കുറേയൊക്കെയായി വരുന്നുണ്ട് മറ്റൊന്ന് പിന്നെ അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതിനാവശ്യമായിട്ടുള്ള വിത്തുകൾ ഇതൊക്കെ കർഷകർക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും കൂടി ചെയ്ത് കൃത്യമായ രീതിയിലുള്ള അവേർനസ്സ് നടത്തി കഴിഞ്ഞാൽ ജൈവ കൃഷി വിജയകരമാക്കി കൊണ്ടു പോകാൻ വേണ്ടി കഴിയും